എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഗ്യാസാണ് ഗ്യാസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് ഒരാള് വീട്ടിലേക്ക് കയറി വന്ന് ഒരു ഗ്ലാസ് ചായ കൊടുക്കണെങ്കിൽ നമുക്ക് ഗ്യാസ് പെട്ടന്ന് കത്തിച്ച് നമുക്ക് അഞ്ച് മിനുട്ടും കൊണ്ട് ചായ നമുക്ക് റെഡിയാവും അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് എന്ത് ഭക്ഷണ സാധനങ്ങളും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളുടെ അടില് കരിയാവില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറ് കാര്യങ്ങളൊക്കെ യൂസെയ്യാൻ ഭയങ്കര ഒരു ഉപകാരുള്ളൊരു സാധനം തന്നെയാണ് ഗ്യാസ്ന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പണ്ടത്തെ കാലത്ത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെടുക്കും പക്ഷെ ഗ്യാസ് വന്നേപ്പിന്നെ നമുക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ടേയില്ല നല്ല സുഖായിട്ട് നമുക്ക് പെട്ടന്ന് പാചകം ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് പിന്നെ പാത്രത്തിൻ്റെ അടീലൊന്നും ഒരു പൊടി പോലും കരി പിടിക്കില്ല അതുകൊണ്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ നമുക്ക് എളുപ്പമാണ് പിന്നെന്ന് വെച്ചാൽ നമ്മള് മെയിനായിട്ട്ന്നു വെച്ചാൽ ഇതുപയോഗിക്കുമ്പോൾ നമ്മള് അതായത് തുറന്ന് ഇട്ടിട്ട് പോവാണ്ടിരിക്കുക പിന്നെ അതിൻ്റെ വയറൊക്കെ ഇടക്ക് ചെക്കുചെയ്യുക വേറെ കുഴപ്പമൊന്നുമില്ല ഗ്യാസ് നല്ലൊരു ഇതുതന്നെയാണ്